കുട്ടികളുടെ മെച്ചപ്പെട്ട വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ ടി വിയിലും ഓൺലൈനിലും വേണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ എൻറ്റൊരഭിപ്രായത്തിൽ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെയും ഓൺലൈനിലും ടി വിയിലോക്കെയും അവൈലബിൾ ആണെന്ന് തന്നെയാണ് എൻറ്റൊരഭിപ്രായം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ടൈം ഒരു ക്ലാസ്സിലും അറ്റന്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ല ഫുൾ ടൈം ഒരു ഫുൾ ക്ലാസ്സുകളും ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ല ഞാൻ എപ്പൊഴും അവസാന നിമിഷം പഠിക്കുന്നൊരാളാണ് അപ്പോൾ എനിക്ക് ക്ലാസുകൾ ശ്രദ്ധിക്കാൻ കഴിയും ഇപ്പോൾ നല്ല ടഫ് സബ്ജക്റ്റ്സ് ഒക്കെ ആയിരിക്കും അപ്പം എനിക്ക് ഈ ക്ലാസുകൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം പരീക്ഷകളുടെ മുൻപ് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നോട്ടുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ടീച്ചർ തരുന്നൊരു ഇരുപതോ ഇരുപത്തിയഞ്ചോ പേജ് ഉള്ള നോട്ടുകൾ മാത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊന്നും പിടി കിട്ടാറില്ല അപ്പം എനിക്ക് വ വളരെ അധികം അത്യാവശ്യമാണ് ഇങ്ങനത്തെ ഇത്തരം കണ്ടന്റുകൾ അപ്പം ഞാൻ ഈ എക്സാമിൻ്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് ആവശ്യമുള്ള നോട്ടുകൾ ടീച്ചർമാരുടെ കയ്യിൽനിന്ന് ശേഖരിക്കുക ചെയ്യും മാത്രമല്ല ഏറ്റവും പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ യൂട്യുബിലും അതേപോലെ തന്നെ ഓൺലൈനിലൊക്കെയും അവൈലബിൾ ആയിട്ടുള്ള കുറേ നോട്ടുകൾ അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയും എക്സ്പ്ലൈൻ ചെയ്യുന്നത് നന്നായിട്ട് വിശദീകരിച്ച് തരുന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോകളും പ്ലേലിസ്റ്റുകളും ഒക്കെയും സേവ് ചെയ്ത് കണ്ടുപിടിച്ച് വയ്ക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പണിയെന്ന് പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടന്റുകൾ ടി വിയിലും ഓൺലൈനിലും വേണം എന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പം എന്നെ മാത്രം നോക്കേണ്ട എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കാര്യമാണല്ലോ എനിക്ക് മിക്കതും അറിയുന്നത് അപ്പം അവരും പറയാറുണ്ട് അവർക്കും ഫുൾ കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ ഗ്രാസ്പ്പ് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഫുൾ ടൈം അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ കൂടെ ചില കാര്യങ്ങളൊന്നും അവർക്ക് ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ദിവസം ഒരു എട്ട് പീരീഡ് ഉണ്ടെങ്കിൽ എല്ലാ സബ്ജെക്റ്റിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഗ്രാസ്പ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കുട്ടികൾ പറ്റുന്ന കുട്ടികളുണ്ടാവാം പക്ഷേ മിക്ക ആൾക്കാർക്കും അത് പറ്റണമെന്നില്ല അപ്പം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുല്ലെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് ഇത്രയും ഓൺലൈനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും കണ്ടുപിടിച്ച് പഠിക്കുക അല്ലങ്കിൽ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ പോലെ ഇങ്ങനെ പഠിക്കുകയാണ് അപ്പം വളരെ അധികം ഇത്രയും സാധനങ്ങൾ വേണമെന്ന് ഞാനാഗ്രഹിക്കുന്നുണ്ട് ഇനിയും കൂടുതലായിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരം പക്ഷെ ഞാനിപ്പം നോക്കുമ്പോൾ ഓരോ സബ്ജെക്റ്റിന് നോക്കുമ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലാണ് ഞാൻ കൂടുതലായിട്ടും തപ്പാറുള്ളത് അപ്പം യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജെറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പാഠം എടുക്കുവാണെങ്കിൽ തന്നെ ആ ഒരു പാഠം എക്സ്പ്ലൈൻ ചെയ്തിട്ടുള്ള കുറേ ചാനലുകൾ ഞാൻ കാണാറുണ്ട് ഒരു പാഠത്തിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നോട്ടുകൾ നോട്ടുകളല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ ഞാൻ കുറേ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞത് ഇത്രയും ഇത്രയും ഇതുകൾ ഞാൻ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ ഇനിയും കൂടുതലായാൽ നല്ലത് കാരണം ഇനിയും കുറേ കുറേ ടോ ചില ടോപ്പിക്കുകൾ തപ്പുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ടാവും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം എനിക്ക് തോന്നുന്നു അപ്പം എല്ലാം വേണമെന്ന് എല്ലാത്തിനും എല്ലാ സബ്ജെറ്റിനും എല്ലാ എൻ്റെ ടോപ്പിക്ക് മാത്രമല്ലല്ലോ ലോകത്ത് ഇഷ്ടംപോലെ സബ്ജെറ്റുകൾ അതേപോലെ തന്നെ ഇഷ്ടംപോലെ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും സഹായ സഹായകരമായിട്ടുള്ള രീതിയിൽ യൂട്യൂബ് കണ്ടൻസ് വീഡിയോസ് ഒക്കെ വേണമെന്ന് തന്നെയാണ് യൂട്യൂബിൻ്റെ മാത്രമല്ല പറയുന്നത് ഓൺലൈനിൽ ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ വേണമെന്ന് തന്നെയാണ് പറയുന്നത് ടി വിയിലായാലും വിദ്യാഭ്യാസ ചാനലുകളും വെബ്സൈറ്റുകളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം ചാനലുകൾ ഓരോ സമയത്തും ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ ഒന്നിന്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നോട്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചില ക്വസ്റ്റിൻസിൻ്റെ ആൻസേഴ്സിന് വേണ്ടിയിട്ടും കുറേ വെബ്സൈറ്റുകൾ ഫോളോ ചെയ്യുകയല്ല മിക്കതും ഞാൻ തപ്പുന്ന സമയത്ത് ഏറ്റവും മുകളിൽ വരുന്നത് ഇവർ തന്നെയായിരിക്കും ഇത്രയും ചാനലുകൾ തന്നെയായിരിക്കും അതിൽ നോട്ട്സ് ആയിരിക്കും നോക്കുന്നത് എനിക്ക് ഒന്നിന്റെയും പേര് പ്രത്യേകമായിട്ട് ഓർമ്മയില്ല അതേപോലെ തന്നെ ചാനലുകൾ നോക്കുകയാണെങ്കിൽ കുറേ വിദ്യാഭ്യാസ ചാനലുകൾ ഓരോ ഓരോ സെമെസ്റ്ററിൻ്റെ സമയത്തും എനിക്ക് ഓരോ സബ്ജറ്റ് വേണ്ടി വരാറുണ്ട് അപ്പോൾ ആ സബ്ജറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെടുക്കുന്ന ചാനലുകൾ പോയിട്ടാണല്ലോ കാര്യമുള്ളൂ അപ്പോൾ അത് ഓരോ സബ്ജറ്റിനനുസരിച്ചായിരിക്കും ഓരോ ചാനലുകൾ ഞാൻ നോക്കുന്നത് എല്ലാം എക്സാമിൻ്റെ തലേ സമയത്ത് മീൻസ് മുൻപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് പിടിക്കലാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി വരുന്നത് അപ്പം എന്റെ അഭിപ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾക്ക് കൂടുതൽ ഇനിയും വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ ഞാൻ വളരെ അധികം ഡിപെൻറ്റഡെഡ് ആണെന്നും ഞാൻ പറയുന്നുണ്ട്